പല രൂപങ്ങൾ ഉണ്ടാക്കി എടുക്കുക എന്ന് പറയുന്നത് വളരെ രസകരമായ ഒരു പ്രവർത്തി തന്നെയാണ് പ്രകൃതിയിൽ നിന്നായാലും മറ്റ് സ്ഥലങ്ങളിൽ നിന്നായാലും നുമുക്ക് ഒരുപാട് പ്രചോദനം ലഭിക്കാറുണ്ട് ഓരോരോ രൂപങ്ങളുണ്ടാക്കാനായിട്ട് വലിയ രൂപങ്ങളുണ്ടാക്കുമ്പോൾ പ്രത്യേകമായും ബുദ്ധിമുട്ട് വരുന്നത് ഇത്രയും വലിയ രൂപത്തിനെ താങ്ങുകൊടുക്കുക അത് പൊട്ടാതെ നോക്കുക എന്നിവയാണ് പല സന്ദർഭങ്ങളിലും ഉണ്ടാക്കി പകുതിയാകുമ്പോൾ ഇത് പല ഭാഗങ്ങളിലും പൊട്ടാറുണ്ട് അതിന് വ്യക്തമായി ആവശ്യമുള്ള താങ്ങുകളും വെലപ്പെടുത്തുന്ന വസ്തുക്കളും ഉപയോഗിച്ച് വളരെ ശ്രദ്ധയോട് കൂടി കൈകാര്യം ചെയ്തില്ലെങ്കിൽ അത് പൊട്ടിപോകും പ്രധാനമായും വലിയ രൂപങ്ങൾ ഉണ്ടാക്കുമ്പോൾ വരുന്ന വെല്ലുവിളി അതു തന്നെയാണ് ഒന്ന് ഇത് സ്ഥാപിക്കുന്നതിനും രണ്ട് ഇത് പൊട്ടിപോകാതെയും വളരെ ശ്രദ്ധയോട് കൂടിയും ഉണ്ടാക്കുക എന്നതു തന്നെയാണ്